നമ്മുടെ കോഴിക്കോട് ജില്ലയില് കോളേജുകളെന്ന് പറഞ്ഞാൽ എടുത്ത് പറയാം വേണെങ്കില് ദേവഗിരി കോളേജ് ഫറൂക്ക് കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പിന്നെ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജ് അതേപോലെ തന്നെ നമുക്ക് സ്കൂള് എടുത്ത് നോക്കുവാണെങ്കില് സെൻറ്റ് ജോസഫ് ബോയ്സ് സ്കൂളുണ്ട് ദേവഗിരി സി എം ഐ സ്കൂളുണ്ട് അൽഫോൺസാ ഇംഗ്ലീഷ് സ്കൂളുണ്ട് നവോദയാ സ്കൂളുണ്ട് ഗവൺമെൻറ്റ്റ് സ്കൂളുകളുണ്ട് അപ്പം നല്ല നല്ല പിന്നെ സ്കൂളുകളുണ്ട് സ്കൂൾ നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്കറിയാം സി ബി എസ് ഇ സ്കൂളിൽ പോവുമ്പൊക്കെ എത്രത്തോളം ഫീ വരുന്നുണ്ടെന്ന് എല്ലാ പൊതു അ പൊതുവായിട്ടുള്ള ആൾക്കാർക്കറിയാം എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ സി ബി എസ് ഇ സ്കൂളില് പോകണം പിന്നെ നല്ല നല്ല കോഴ്സുകളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നല്ലൊരു ഇൻസ്റ്റിട്യൂട്ട് നല്ലൊരിതാണ് എന്നെനിക്ക് തോന്നുന്നു കോഴിക്കോടിലുള്ളത് നല്ല നല്ല അവസരങ്ങളുണ്ട്